നമ്മുടെ വയനാട് ജില്ലയിലെ ആളുകൾ പിന്തുടരുന്ന ചില പൊതുവായ തൊഴിലുകളെന്ന് പറഞ്ഞാൽ എന്താ പറയാ മെയ്നായിട്ട് അവരെന്താ പറയാ ഓരോ കൃഷി കൃഷിയിലൂടെ തന്നെ അവൻ്റെ വരുമാനം കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ് ഈ നെല്ല് അതുപോലെ തന്നെ കുരുമുളക് കുരുമുളക് ഏലം ഇഞ്ചി അതൊക്കെ കൃഷി ചെയ്തിട്ട് തന്നെ അതൊക്കെ നമ്മൾ പുറത്ത് മാർക്കെറ്റിൽ കൊണ്ട് പോയി വിൽക്കുക അതുപോലെ തന്നെ അവന് എന്താ വയനാട് ജില്ല ആളുകൾ ഇങ്ങനെ പൊതുവായിട്ടൊരു എന്നത് ഒരു രീതി തൊഴിലിൻ്റെ ഒരു രീതിന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് അവർ വരുമാനം ഉണ്ടാക്കുന്നതും പിന്നെ അതുപോലെ തന്നെ കയർ നിർമ്മാണം സോഫ്റ്റ് വെയർ ഡെവലപ്പറ് മത്സ്യബന്ധനം നമ്മുടെ മത്സ്യതൊഴിലാളികളൊക്കെ നമ്മുടെ കടലിൽ പോയിട്ട് മത്സ്യം പിടിച്ചിട്ടാണ് ഉണ്ടാവുക അതിങ്ങളെ വിറ്റ് മത്സ്യങ്ങളെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്ന വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ട് അതുപോലെ കയർ കയർ നിർമ്മിച്ചിട്ട് എന്താ കയർ നിർമ്മിച്ചിട്ട് പിന്തുടരുന്ന ചില പൊതുവായ തൊഴിലുകൾ നമുക്കുണ്ട് അതുപോലെ തന്നെ ഓരോന്നും വിറ്റും പെറുക്കിയൊക്കെ തന്നെയാണ് നമ്മുടെ വയനാട് ജില്ല ആളുകളൊക്കെ എന്താ പറയാ അവരുടെ തൊഴിലിനെ കണ്ടെത്തി പോകുന്നത് അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്താ പറയാ ഈ സോഫ്റ്റ് വെയർ ഡെവലപ്പർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഓരോ സോഫ്റ്റ് വെയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ട് വരിക പിന്നെ കയർ നിർമ്മാണം കയർ നിർമ്മാണിച്ച് കയർ നിർമ്മിച്ചിട്ട് എന്താ പറയാ അവർക്ക് ഓരോ നല്ലൊരു ഏ തുക ഉണ്ടാക്കുക പിന്നെ മത്സ്യം കടലിൽ പോയിട്ട് എന്താ മത്സ്യം പിടിച്ച് ആ മത്സ്യത്തെ മാർക്കറ്റിൽ കൊണ്ട് വിറ്റാൽ തന്നെ അത്യാവശ്യം നല്ലൊരു വരുമാനാവും ഇതുപോലെ തന്നെയാണ് വയനാട് ജില്ലയിലെ ആളുകളൊക്കെ ഈ സെയിം പ്രോസിജിയറ് ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് വയനാട് ജില്ലയിലെ ആളുകളൊക്കെ എന്താ പറയാ ഇങ്ങനെ പൊതുവായിട്ട് ഇങ്ങനെ പിന്തുടർന്ന് കൊണ്ടിരിക്കുന്ന ഒരു തൊഴിലുകളെന്ന് പറയുന്നത്